ആ ഇത് ആ ഞാൻ ഒരു ഷ്വാളിന് വേണ്ടി വന്നതാണ് ഞാൻ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ട് ഒരു സൈഡ് ഭാഗത്തൊക്കെയായിട്ടൊരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നത് ആണ് ആ അതെ അതെ അതെ ആ അതെ ഒരു ഒരു പിങ്ക് കളറ് കിട്ടുവോ ആണല്ലേ അപ്പോൾ അതിൽ കുറച്ച് ഹെവി ഒരു സൈഡിൽ മാത്രം മതി കുറച്ച് ഹെവിയായിട്ട് എംബ്രോയിഡറി വർക്കുള്ളത്

ആ കൃഷ്ണൻ വേണ്ടാ ലൈക് വല്ല ഫ്ലവേർസ് അങ്ങനെന്തെങ്കിലും മതി ആ അപ്പം നമുക്കൊരു ഒരു ഒരു ഇരുവതെണ്ണം എടുക്കാനാണ് കാരണം ഒരു പ്രോഗ്രാമിന് കോ കോഡായിട്ട് ഇടാനാണ് ആണോ ഇതിപ്പോൾ എവിടെയായിരുന്നു സ്ഥലം ആണോ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഒരൂ ഇരുവത്തഞ്ചാന്തി ആവുമ്പോൾ കിട്ടുവോ ആണല്ലേ ആ അപ്പം നമ്മൾ വരാം പ്രൈസൊക്കെങ്ങനെയാണ്

രണ്ടായിരം അത്രയെ ഉള്ളൂ ആ എന്നാൽ പിന്നെ ഓക്കെ ഓക്കെ ആ അവിടെയിപ്പം ജൻസ് വെയർ അങ്ങനെന്തേലുമുണ്ടോ ജൻസ് വെയറ്

ഓക്കെ സോറി സോറി അപ്പം ഞാനെന്നാണ് ഇരുവത്തഞ്ചാന്തി വരാം ആണോ എപ്പോഴൊക്കെയാണ് നിങ്ങൾ തുറക്കുന്നത് ആണോ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ആണോ അവിടുന്നിപ്പം ബസ്സ് എന്നാൽ ഞാൻ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആവുമ്പത്തേനും വരാം നിങ്ങൾ ലഞ്ച് കഴിക്കാൻ

ഇരുവത്തി ആറാന്തി വരാം ആ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ ലഞ്ച് ബ്രെയ്ക്കിൻ്റെ ആ ഇടക്ക് നിങ്ങൾ എപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോണത് ആ അപ്പോൾ ഞാൻ ട്വൽവോ ക്ലോക്കിന് വരാം ആ എന്നാൽ ശരി